ഹലോ ക്യാബ് ഡ്രൈവർ അല്ലേ എനിക്ക് വയനാട്ടിൽ നിന്ന് മൂന്നാർക്ക് ഒന്ന് ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഏഴ് എട്ട് ഏഴ് പേർ അടുത്ത് ഏഴ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു വണ്ടിയും നല്ലൊരു ഡ്രൈവറും ആവശ്യം ഉണ്ടായിരുന്നു

ഞാൻ ഈ ഓണം കഴിഞ്ഞ് മുപ്പത്തി ഒന്നാം തീയതി

അറേഞ്ച് ചെയ്തുതരാൻ പറ്റും അല്ലേ വണ്ടി ഏതാണ് ഉള്ളത് ഇന്നോവ മതി ഇന്നോവ ക്രിസ്റ്റ ആണോ ആ ക്രിസ്റ്റ മതി

വേണ്ട ഫോർച്യൂണർ ഒന്നും വേണ്ട ആ ഫോർച്യൂണറിന് അല്ല ഫോർച്യൂണറിന് എത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് റെന്റ് വണ്ടീന്റെ റെന്റ് അല്ലേ അപ്പം ഡ്രൈവറിൻ്റെയും കൂടെ കൂട്ടിയിട്ട് എങ്ങനെ എത്രയാണ് വരിക അത്രയും വരും അല്ലേ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഓ ഇന്നോവയ്ക്കോ ആ രണ്ടും കൂടെ അതായത് ഡ്രൈവറിൻ്റെയും വണ്ടീൻ്റെയും ഉണ്ട് ആ ഇന്നോവ മതി ഇന്നോവ മതി ആ അതെ അതെ ഇന്നോവ പെർ ഡേ അല്ലേ ആ ഇരുന്നൂറ്റിയമ്പത് വരും ആ ഓക്കെ ഓക്കെ ആ അത് കുഴപ്പം ഇല്ല ആ ഇല്ല ഇല്ല ഇല്ല അത് നമുക്ക് പിന്നെ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒക്കെ നിങ്ങൾ റെഡി ആക്കി തരുമോ അത് എന്താണ് ആ ആ ഓ ആ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ആ നിങ്ങൾ ഒന്ന് പറഞ്ഞ് നോക്കുക കിട്ടുമോ എന്ന് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ മെയിൻ സ്ഥലങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ തന്നെയാണ് എടു എടുക്കുന്നത് എടുത്തോളും അല്ലേ ആ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ മറ്റന്നാൾ ഒന്ന് വരുവോ ഞാൻ ലൊക്കേഷൻ ഓക്കെ രാവിലെ ഒരു അഞ്ചര ഒക്കെ ആവുമ്പം എത്തണം കേട്ടോ

ഓക്കെ എന്നാൽ